മലയാള ഭാഷ നമ്മുടെ കേരളത്തിൻ്റെ മാതൃഭാഷയാണ് നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അമ്മയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ അമ്മ തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മറ്റേത് ഭാഷ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മാതൃഭാഷയായ മലയാളം നമ്മൾ പഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മലയാളം നമുക്ക് അറിയാം എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കൈവരിക്കുക നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പം വളർന്ന് വരുന്ന പുതു തലമുറയായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതലും മലയാളം മര്യാദക്ക് സംസാരിക്കാനും എഴുതാനും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് വെല്ലുവിളിയുടെ ഒരു സാഹചര്യം അവിടെ ഉയർന്ന് വരുന്നില്ല പിന്നെ മറ്റു സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കേരളക്കാരനാണ് നമ്മളൊരു മലയാളിയാണ് അപ്പം ഒരു സായിപ്പിന് മലയാളം അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില സായിപ്പമ്മാർ നമ്മുടെ കേരളത്തിൽ ഒക്കെ ജീവിക്കുന്നവർക്ക് കുറേ പേർക്ക് അറിയാം മലയാളം അറിയാം അപ്പം അവർ പറയുന്ന മലയാളവും നമ്മൾ പറയുന്ന മലയാളവും തമ്മിൽ കംപയർ ചെയ്യുമ്പോൾ അവരാണ് ബെറ്റർ ആയിട്ട് നമ്മുടെ മലയാളം പറയുന്നത് എങ്കിൽ അത് നമുക്ക് മോശമാണ് അപ്പം അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് ഇന്നത്തെ കാലത്ത് തോന്നിയിട്ടുള്ളത്